ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നതിനു വേണ്ടിയാണ് വിളിച്ചത് എനിക്ക് വേണ്ടി അല്ല എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയുടെ കൂടെ എറണാകുളത്താണ് അപ്പം അവർക്ക് തിരികെ എൻ്റടുത്തു വരേണ്ടതായിട്ടുണ്ട് അവർ കുറച്ചസുഖബാധിതരായതിനാൽ മറ്റു യാത്ര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക പ്രെ പ്രയാസമായിരിക്കും ചേച്ചിക്ക് അവരുടെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അതിനാൽത്തന്നെ ക്യാ അതിനാൽത്തന്നെയാണ് ക്യാബ് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അതാകുമ്പോളവർ സേയ്ഫായിത്തന്നെ ഇവിടെ എത്തും അച്ഛനും അമ്മയും മാത്രമാണ് യാത്ര ചെയ്യുന്നത് അവർക്ക് എർണാകുളത്തുനിന്ന് കൊല്ലത്തു വരെയുള്ള യാത്രാ സമയവും മറ്റു ചിലവുകളും കണക്കാക്കി എത്ര രൂപയാണെന്നു പറഞ്ഞാൽ ഞാൻ ആത്തുക അഡ്വാൻസ്സായിട്ട് തന്നെ അയച്ചു തരാം ലൊക്കേഷൻ ഞാൻ അയച്ചു തരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അച്ഛനും അമ്മയേയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യാത്രാ മദ്ധ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായും എന്നെ അറിയിക്കണം പൈസയുടെ കാര്യമെല്ലാം ഞാൻ നേരത്തെ കൂട്ടിത്തന്നെ ബുക്ക് പേ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ അറിയിച്ചാൽ മതി പ്രത്യേകമായിട്ടുള്ള കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ടവർക്ക് അതുകൊണ്ടാണ് ഇതെടുത്തു പറയുന്നത് പിന്നെ വരാനുള്ള വഴിയും എല്ലാം ഞാൻ സെൻറ്റ് ചെയ്തു തരാം ഞാൻ എൻ്റെ നമ്പറും അയച്ചുതരാം പി എത്രരൂപയാണെന്ന് നേരത്തേ തന്നെ മുൻകൂട്ടി പറയാൻ സാധിച്ചാൽ ആ റീഫണ്ട് ഫണ്ട് ചെയ്തു തരാൻ സാധിക്കുമെനിക്ക്